ആ ഹലോ ചേട്ടാ ഞാന് ഇവിടെ എറണാകുളത്ത് നിന്നാ വിളിക്കുന്നെ നമുക്ക് ഒന്ന് ഇടപ്പള്ളിവരെ പോകണം ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇടപ്പള്ളി പോയി അവിടുന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ആലുവ വരെ ഒന്ന് പോകണം ആലുവ മെട്രോ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം അപ്പൊ എന്താ പ്രൈസ് റേറ്റ് എത്ര വരും ആ ഓക്കേ ഓക്കേ